മലയാളഭാഷയെ ഹിന്ദിയുമായി താരതമ്യം ചെയ്യുന്നതിന് കുഴപ്പമില്ല ചെയ്യാവുന്നതാണ് ശരിക്കും താരതമ്യം ചെയ്യേണ്ടതുമാണ് അതെന്താന്ന് വെച്ചാൽ മലയാളികള് ലോകത്തിൽ എല്ലായിടത്തും ഉണ്ട് അപ്പം ഇവരെല്ലാം സംസാരിക്കുന്നത് മലയാളമാണ് പോരെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഔദ്യോഗിക ഭാഷയായിട്ട് മലയാളത്തെ മാറ്റിയിട്ടുണ്ടല്ലൊ അപ്പഴ് ഹിന്ദി രാഷ്ട്രഭാഷയാണ് ഹിന്ദി സംസാരിക്കുന്നവര് കേരളത്തിലേക്ക് വരുന്നുണ്ട് ഇഷ്ടംപോലെ പണിക്കാരൊക്കെ ആയിട്ട് കേരളത്തില് ഹിന്ദിക്കാരുണ്ട് അപ്പോൾ ഈ മലയാളത്തെ ഔദ്യോഗിക ഭാഷയായിട്ടും കൂടെ അംഗീകരിക്കുകയാണെങ്കില് കുറെ പേരുംകൂടെ മലയാളം സംസാരിക്കുകയും ഇങ്ങനെ ഔദ്യോഗിക കാര്യങ്ങളിലെല്ലാം മലയാളം ഉൾപ്പെടുത്തുന്നത് കൊണ്ട് മലയാളത്തിൽ അതിൻ്റെ ഒരു പ്രമുഖ സ്ഥാനം കിട്ടും പിന്നെ മലയാളം ചെറുപ്പം മുതലേ എന്നതാ കേരളത്തിലെന്നു പറഞ്ഞാൽ മലയാളം അമ്മ ഭാഷ മാതൃഭാഷയാണ് അപ്പോൾ ചെറുപ്പം മുതലേ മലയാളം പഠിക്കുന്നവർക്ക് കേട്ടു പഠിക്കുന്നവർക്ക് പിന്നെ അത് വായിക്കാനും എഴുതാനും ഉള്ളത് പഠിച്ചെടുത്താൽ മതി മലയാളം പഠിക്കുക എന്ന് പറയുന്നത് സ്വരാക്ഷരങ്ങള് വ്യഞ്ജനാക്ഷരങ്ങള് ചിഹ്നങ്ങളെല്ലാം ഇതൊക്കെ എഴുതി പഠിക്കുന്ന പഠിച്ചു വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യവാണ് മലയാളികളെ കൊണ്ടത് കുഴപ്പമില്ല പിന്നെ ഔദ്യോഗികമായിട്ട് വരുമ്പഴ് വായിക്കാൻ എങ്കിലും ഇനി മറ്റു ഭാഷകൾ സംസാരിക്കുന്നവരും മലയാളം വായിക്കാനും അത് കേട്ടാൽ മനസ്സിലാക്കാനും ഒരു കഴിവുണ്ടാക്കി എടുക്കണ്ടതാണ് അപ്പോൾ അതിന് എങ്ങനെയാണ് എന്ന് വെച്ചാല് മറ്റ് ഓഫീസുകളിലൊക്കെ അത് ട്രാൻസലേഷൻ ആയിട്ട് അതായത് ഹിന്ദി എഴുതുന്നതിന്റെ ഒപ്പം അതിൻ്റെ മലയാളം കൂടെ എഴുതി വെക്കുമ്പം എല്ലായിടത്തും മലയാളികളുണ്ടല്ലോ അപ്പം അവർക്കത് വിവർത്തനം ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ ബുക്കുകള് കുറെ അധികം കവിതകളും കഥകളും നോവലുകളും എല്ലാമുണ്ട് മലയാളത്തില് അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോഴ് മറ്റു ഭാഷകളിലേക്കും കൂടെ എഴുതുമ്പഴ് പ്രത്യേകിച്ച് ഹിന്ദിയിലേക്ക് എഴുതി വരുമ്പഴ് അത് കൂടുതൽ വായിക്കാൻ പറ്റും പിന്നെ മലയാളത്തെ നല്ല നല്ല സിനിമകളുണ്ട് അപ്പോൾ ആ മലയാള സിനിമകള് കാണുന്നതിലൂടെ കൂടുതലായിട്ട് ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഹിന്ദി എത്രത്തോളം പ്രാധാന്യമായിട്ട് ഇന്ത്യയില് ഉപയോഗിക്കുന്നുണ്ടോ അത്ര അതിലധികമായിട്ട് കേരളീയർക്ക് കേരള ഭ ത്തിൻ്റെ ഭാഷയായ മലയാളം ഉപയോഗിച്ചു വരുന്നുണ്ട് അപ്പം ഈ മലയാളത്തിന് കുറച്ചും കൂടെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓഫീസുകളില് അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് എല്ലാ കേരളത്തിൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട് മലയാളികള് അല്ല ലോകത്തില് മൊത്തമെന്ന് പറഞ്ഞത് പോലുണ്ട് അപ്പോൾ ഈ മലയാളഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ മറ്റു ഭാഷകളിൽ ഉള്ളവർക്കും കൂടെ മലയാളത്തിനോട് താല്പര്യം ആവുകയും ഇതുപോലെയുള്ള മാധ്യമങ്ങളിലൂടെ പിന്നെ ടി വി ചാനലുകള് മലയാളം ചാനലുകള് ഇന്ത്യയില് മൊത്തം മലയാളം ചാനല് കിട്ടത്തക്ക രീതിയില് ആകുമ്പോൾ അത് വാർത്തകളും പാട്ടുകളും സിനിമകളും ഇതിൽ കൂടെയൊക്കെ മലയാളത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഹിന്ദിയുടെ പ്രാധാന്യം പോലെ തന്നെ മലയാളവും ഔദ്യോഗിക ഭാഷയായിട്ട് ഒരു സ്ഥാനം കൊടുക്കുകയും ചെയ്യുക അപ്പം നിർബന്ധമായിട്ടവര് മലയാളം ആളുകള് ഉപയോഗിക്കും മറ്റുള്ളവര് മറ്റ് ഭാഷ സംസാരിക്കുന്നവര് അപ്പം എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും കേട്ടാൽ മനസ്സിലാക്കാനും വായിച്ചെടുക്കാനും ആയിട്ട് മലയാളത്തെ നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ മലയാളഭാഷയെ നമുക്ക് ഹിന്ദി ആയിട്ട് താരതമ്യം ചെയ്യുകാന്ന് പറഞ്ഞാല് മലയാളത്തിന് അതിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രമാണ് ഹി മലയാളത്തെയും ഹിന്ദിയോടൊപ്പമായിട്ട് ഉയർത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ